എൻ്റെ അടുക്കളേലും വ്യത്യസ്ത പാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം പലഹാരം ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ദോശ പിന്ന അതുപോലെ വെള്ളയപ്പച്ചട്ടി പിന്നെ ഇഡലി ചെമ്പ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ പിന്നെ എൻ്റെ പിന്നെ വീട്ടില് ഇപ്പോൾ ഇഡലിച്ചെമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെന്ന് ചോറ് വെക്കാനാണെങ്കിൽ അല്ലാത്ത ചെമ്പ് പിന്നെ മീൻ കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ചട്ടി പിന്നെ കുക്കറ് കുക്കറെന്ന് വെച്ചാൽ നമുക്ക് ചോറ് വെക്കാനൊക്കെ പറ്റും പിന്നെ എന്താച്ചാ കൂടുതലും കറി കറികളാണ് കുക്കറില് വെക്കുക പിന്നെന്ന് വെച്ചാൽ ചോറ് തിന്നാൻ അതായത് കഞ്ഞി കുടിക്കാനുള്ള സ്റ്റീൽ പാത്രങ്ങള് പിന്നെ ചോറ് തിന്നാൻ അല്ലാത്ത ഫൈബറ് അല്ലാണ്ട് ഫൈബർ ചില്ലിൻ്റെ പാത്രം അങ്ങനെയുള്ള പത്രങ്ങളൊക്കെ പിന്നെ കറി വിളമ്പാനുള്ള പാത്രം പിന്നെ കയില് സ്പൂണ് പിന്നെ ചായ കുടിക്കാനും കാപ്പി കുടിക്കാനൊക്കെ ഗ്ലാസ്സ് പിന്നെ പിന്നെ പുട്ടൊക്കെണ്ടാക്കാനായിട്ട് അതായത് കുക്കറിൻ്റെ മുകളില് വെക്കുന്ന ചെറിയൊരു പുട്ടിൻ്റെ ആ പുട്ടുണ്ടാകുന്നൊരു സംഭവം പിന്നെ അല്ലാത്ത പുട്ട് കുറ്റി പിന്നെ ഓട്ടടച്ചട്ടി അങ്ങനെയുള്ള അങ്ങനെ ഒരുപാട് പാത്രങ്ങളുണ്ട് വീട്ടില് അതായത് എല്ലാത്തിനും ഉപയോഗിക്കാനുള്ള പാത്രങ്ങള് എൻ്റെ വീട്ടിലുണ്ട്